ആ ഡെൽഹി വരെ ഉള്ള യാത്രയിൽ അധികം നമ്മളിങ്ങനെ ഇൻഷൊറൻസൊന്നും തരുന്നില്ല നിലവില് നിങ്ങള് യാത്ര എവിടേക്കാണ് ഡെൽഹിയ്ക്കാണൊ ചെയ്യുന്നത്

ആ ആ അ ഞങ്ങള് ഇതിപ്പം ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഡെൽഹി വരെ ഏകദേശം മൂന്ന് മൂന്നര ദിവസത്തെ യാത്ര ഉണ്ട് ആ യാത്രയില് നിങ്ങൾക്ക് എന്തേലും ബുദ്ധിമുട്ടുകളൊണ്ടാവുന്നെങ്കിൽ ഞങ്ങള് ഇൻഷുറൻസ്സ് പരിരക്ഷ തരുന്നതായിരിക്കും പക്ഷെ എല്ലാത്തിനും കവറേജ് കിട്ടുവെന്ന് ഞങ്ങൾ ഒരു ഉറപ്പും തരുന്നില്ല ആ യാത്രയിൽ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകള് സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങള് തരികയുള്ളൂ നിങ്ങളിപ്പോളൊറ്റയ്ക്കാണൊ യാത്ര ചെയ്യുന്നത് ആ എന്തായാലും നിങ്ങൾക്ക് ഒര് ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ ഇന്ത്യൻ റെയിൽവേ നമ്മുടെ എല്ലാ രീതിയിലും ഉള്ള ക്രമീകരണങ്ങളും നടത്തുന്നതായിരിക്കും പിന്നെ കൂട്തൽ വിവരങ്ങളറിയണമെങ്കിൽ ഞങ്ങളുടെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടേണ്ട ആവശ്യമുണ്ട് ഇതിപ്പം നിങ്ങൾ എന്നാണ് യാത്ര ചെയ്യാൻ പോകുന്നത് നിങ്ങള് ഏത് ട്രെയ്നിലാണ് യാത്ര ചെയ്യുന്നത് രാജധാനി എക്സ്പ്രസിലാണൊ ആ ഏസീയിലാണൊ നിങ്ങള് പോകുന്നത് ആ അപ്പം നിങ്ങള് നേരത്തെ തന്നെ ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിട്ടുള്ള ആളാണൊ റിസർവേഷൻ ചെയ്യൂ നിങ്ങള് റിസർവേഷൻ ചെയ്ത ശേഷം കാരണം രാജധാനി വരെ ഉള്ള യാത്രയാണ് ഒരുപാട് തിരക്കുകൾ ഉള്ള സമയവാണ് അപ്പം ഇരുപതാം തിയതി നിങ്ങൾ ഇപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ടിക്കറ്റ് ഓക്കെ ആകണമെന്നില്ല ടിക്കറ്റ് ഓക്കെ ആയി നിങ്ങൾക്ക് റിസർവേഷൻ കൺഫർം ആയാലെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് നിങ്ങളെന്തായാലും റെയിൽവേയില് നിങ്ങളുടെ ടിക്കറ്റൊന്ന് ബുക്ക് ചെയ്ത് നോക്കു ബുക്ക് ചെയ്ത് ടിക്കറ്റ് നിങ്ങൾക്കുറപ്പായെങ്കിൽ മാത്രം ബാക്കി കാര്യങ്ങള് നിങ്ങള് വിളി വിളിച്ചന്വേഷിക്ക് അപ്പോൾ പറഞ്ഞ് തരാം ഞങ്ങള് ഉറപ്പായും നിങ്ങളെന്തായാലും ടിക്കറ്റ് ഓൺലൈൻല് ബുക്ക് ചെയ്യു രണ്ട് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് എന്നാണ് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങള് ഞങ്ങള് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും